കുട്ടിക്കാലത്തു ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന കളികളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അക്കുകളി അതുപോലെതന്നെ കുട്ടിയും കോലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അക്കുകളിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു നമ്മൾ എട്ട് കോളം വരയ്ക്കും ഒരു സൈഡിൽ നാല് മറ്റേ സൈഡിൽ നാല് എന്നിട്ട് നമ്മൾ ഒരു കല്ലെടുത്ത് അതിലോട്ടിടും അപ്പം ഓരോ കല്ലും വീഴുന്നതിനും ഓരോ നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അണ്ടം കൊണ്ട് ചാടി ചാടി എടുക്കണം എടുത്തിട്ട് ഒറ്റക്കാലിൽ അവിടുന്ന് കല്ലെടുത്ത് തുള്ളി തുള്ളി തുള്ളി തുള്ളി ഇപ്പുറത്ത് വരണം അതുപോലെ കറക്റ്റ് ആയിട്ട് ഓരോന്നിലും ഇടണമായിരുന്നു ആദ്യം ഒന്നാമത്തെ എണ്ണം പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ അങ്ങനേക്കാ പിന്നെ നമ്മൾ ഒറ്റക്കാലിൽ കുത്തികുത്തി പോവുന്നതുകൊണ്ട് തന്നെ ഇടക്കായിട്ടൊരു സേഫ് സോൺ ഉണ്ടായിരുന്നു അവിടെ നമുക്ക് രണ്ടുകാലും കുത്തുകയും ഒക്കെ ചെയ്യാമായിരുന്നു അപ്പം അതായിരുന്നു നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം എന്നുപറയുന്നത് അങ്ങനെ നമ്മൾ ഇതുപോയിട്ട് കറങ്ങി വരും അത് പല ടാസ്ക്ക് ഒക്കെ ഉണ്ടായിരുന്നു ലാസ്റ്റ് മുഖത്തുവെച്ചു പോവണം അതുപോലെതന്നെ തലയിൽ വെച്ചുകൊണ്ടുപോവണം കൈ വെച്ച് പോവണം കൈ മലർത്തിപ്പിടിച്ചു പോവണം തിരിച്ചു പിടിച്ചുപോവണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതിനിടക്ക് കളിക്കുന്ന കളി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുട്ടിയും കോലും ആയിരുന്നു അപ്പോൾ കുട്ടിയും കോലുമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമായിരുന്നു അതായത് രണ്ട് കല്ല് വയ്ക്കുക അതിൻ്റെ മണ്ടയിൽ നമ്മൾ ഒരു കോൽ വയ്ക്കുക പിന്നെ നീളമുള്ള കോലിന് അതും അടിച്ചുതെറിപ്പിക്കുക അത് അടിച്ചുതെറിപ്പിച്ച് ആരാണ് പിടിക്കുന്നത് പിടിക്കുന്ന ആളാണ് പിടിച്ചുകഴിഞ്ഞാൽ അയാൾ തന്നെ പിന്നെയും കളിക്കണം പിടിച്ചില്ലെങ്കിൽ അതെടുത്തെറിഞ്ഞു സിക്സും ഫോറൊക്കെ കണ്ടുപിടിക്ക് ഒക്കെ പോവണം അപ്പം ഈ രണ്ട് കളിയാണ് മെയിൻ ആയിട്ട് കുട്ടിക്കാലത്തു കളിച്ചുകൊണ്ടിരുന്ന കളി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടിയും കോലും അക്കു കളി പല സ്ഥലത്തും ഇതിനെ അക്കു ഞങ്ങളുടെ അവിടെ അക്കെന്ന് പറയും ബാക്കി ഉള്ള പലയിടത്തും ഞൊണ്ടിക്കളീം കാര്യങ്ങളെന്നൊക്കെ പറയും അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള കളികളെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്നത് ക്രിക്കറ്റും ഫുട്ബോളും ആണ് അപ്പോൾ ആദ്യം ക്രിക്കറ്റ് ആണ് കളിച്ചുകൊണ്ടിരുന്നത് ചെറിയ ചേട്ടന്മാരുടെ കൂടെ കളിച്ചുകൊണ്ടിരുന്നത് അപ്പം അത്യാവശ്യം കുറേ നാൾ ക്രിക്കറ്റ് ഇതുപോലെ കളിച്ചു അതൊരു ആറാം ക്ലാസ് വരെ ക്രിക്കറ്റ് കളിച്ചു പിന്നെയാണ് ഫുട്ബോളിലോട്ട് മാറിയത് അതുകഴിഞ്ഞ് ഫുട്ബോൾ അപ്പോളും കളിക്കുന്നു ഇപ്പോളും കളിക്കുന്നു അപ്പം ഈ രണ്ട് കളിയാണ് മെയിൻ ആയിട്ട് ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്നത് പറഞ്ഞാൽ ഇപ്പോൾ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതൽ കൂട്ടുകാരെ കിട്ടിത്തുടങ്ങിയത് അപ്പം ക്രിക്കറ്റിൽ ഞാൻ കില്ലാടി ആയിരുന്നു ക്രിക്കറ്റ് ഇപ്പോൾ കോളേജിൽ വന്നിട്ട് ഇപ്പോളും ക്രിക്കറ്റ് കളിക്കുന്നു ഫുട്ബോൾ ഇപ്പം നമുക്ക് ഇച്ചിരി കുറവാണ് ക്രിക്കറ്റ് ആണല്ലോ മെയിൻ ആയിട്ട് കളിച്ചോണ്ടിരിക്കുന്നത്